ആ അതെ പറഞ്ഞോളൂ ആ ഓക്കെ മാഡം ആ ഓക്കെ ആ ഓക്കെ ഓക്കെ

ആ നെക്സ്റ്റ് മന്ത് അല്ലേ പറഞ്ഞത് നമുക്ക് കുറച്ച് പെൻഡിങ് വർക്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ചെയ്യാൻ ആ മതിയാവും അല്ലേ ആ ആ ഓക്കെ

ഓക്കെ നമ്മളിപ്പം ചെയ്യുന്ന ഡിസൈൻസിൻ്റെ കുറച്ച് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തരാം വാട്സപ്പ് ഫോട്ടോസ് അയച്ച് തരാം എന്നിട്ട് മാഡം അതിനകത്ത് ഇന്ററ്സ്റ്റ് ഉള്ളത് ആ ഓക്കെ ഡിസൈൻസ് കുറച്ച് നമ്മുടെ കയ്യിലുണ്ട് ആ ഉണ്ട് ഉണ്ട് ഉണ്ട് അപ്പം ആ വാട്സപ്പ് ചെയ്ത് തന്നിട്ട് മാഡത്തിന് ഏതാണ് വേ എങ്ങനെ ആ ഓക്കെ

മ് ആ ഓക്കെ ആ മാഡത്തിന് ഞാൻ കുറച്ച് ഡിസൈൻസ് വാട്സപ്പ് ചെയ്ത് തരാം എന്നിട്ട് അതിൽ നിന്ന് മേഡം ചൂസ് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാം റേറ്റും കാര്യങ്ങളും അപ്പം നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഹങ്ക ഒക്കെ ആണെങ്കിൽ

ഓക്കെ എന്നാൽ ഒരു ബഡ്ജറ്റിലുള്ളത് ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചുതരാം എന്നിട്ട് മാഡം അതിനകത്തുനിന്ന് ചൂസ് ചെയ്തിട്ട് അയച്ചാൽ മതി

ആ സ്റ്റിച്ചിങ്ങ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്

ആ അത് മതിയാവും ഷർട്ട് ഒക്കെ സ്റ്റിച്ചിങ്ങ് മാത്രമാണെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് ആ ഒരു ബഡ്ജറ്റ് ഒക്കെ വരുള്ളൂ പിന്നെ അഡീഷണൽ എംബ്രോയ്ഡറിയോ അതിപ്പോൾ നമ്മൾ സാരീൻ്റെ എങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അതിനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പറയുക ആവും ആവും ആ ഓക്കെ മാഡം എന്നാൽ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി ആയിക്കോട്ടെ മാഡം ആ ഞാൻ വാട്സപ്പ് ചെയ്തെക്കാം